ഹായ് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ നമ്മൾ ഇവിടെയൊക്കെ തന്നെയുണ്ട് ക്ലാസൊന്നും കുഴപ്പമില്ല സുഖമായിട്ട് ചേച്ചി ഇപ്പം എന്താ ചെയ്യുന്നത് ഓ തേർഡ് സെമസ്റ്ററ് ആ എവിടെയാണ് ഡിപ്ലോമ ചെയ്തത് ഒറ്റപ്പാലം ആ എന്തായിരുന്നു കോഴ്സ് ആ ഡാറ്റാ എത്രയായി ഫീസൊക്കെ

പത്തായിരം

ഡെയ്ലി ക്ലാസ്സ് ഉണ്ടായിരുന്നൊ എത്ര മണിക്കൂറാണ് ക്ലാസ്സ് ഇപ്പം എന്താ ഇവിടെ വന്നിരിക്കുന്നത്

കോളേജ് ഭയങ്കര സൂപ്പറല്ലെ അവിടെ ഭയങ്കര രസമുള്ള കളിയും ചിരിയുമാണ് ഇവിടെ എന്ത് പുരോഗമനം പഴയപോലെ തന്നെ പ്രോജക്ട് കുഴപ്പമില്ലാതെ പോകുന്നു എക്സാമ് നടന്നുകൊണ്ടിരിക്കുന്നു സപ്ലീ റിസൾട്ട് വന്നിട്ടില്ല എക്സാമ് കുഴപ്പമില്ല

ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ എന്തെങ്കിലും പി ജി എടുക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകണം പ്രൊജക്ട് നോക്കുന്നു തീരുമാനിച്ചിട്ടില്ല എന്നാലും ഒന്ന് നോക്കണം ഇലക്ട്രോണിക്സ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നു വിചാരിക്കുന്നു നിങ്ങൾ ഏതാണ് പ്രോജക്ട് ചെയ്തത് ആ അവിടെ പൈസ കൊടുത്തിട്ടാണോ ചെയ്തത്

എന്താ ആ എന്തായിരുന്നു നിങ്ങളുടെ പ്രോജക്ട് ആ എത്ര പേരുണ്ടായിരുന്നു നിങ്ങളെ ഗ്രൂപ്പിൽ ഈ പ്രോജക്ട് ചെയ്യാൻ ആ ആ എന്നിട്ടൊ പ്രൊജക്ട് ഒക്കെ നിങ്ങളെ പ്രൊജക്ട് എടുത്ത് വച്ചിട്ടുണ്ടൊ ആ അതിൽ അതിൽ പ്രോജക്ട് എന്നുള്ള നമ്പർ ഉണ്ടോ നിങ്ങളതിൽ ഉണ്ടെങ്കിൽ

നമ്പറ് ഇപ്പോൾ പറഞ്ഞു തന്നാൽ മതി എൻ്റെ നമ്പർ ഉണ്ടോ ടീച്ചറെ കയ്യിൽ ടീച്ചറുടെ നമ്പർ പറയു ഞാൻ മെസ്സേജ് അയക്കാം പറയു നമ്പർ പറയു മുപ്പത്തൊന്ന് നാല്പത്തേഴ് അമ്പത്തെട്ട് നാൽപത്തിമൂന്ന് ഇരുപത്തിരണ്ട്

ആ ശരി ആ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ എന്തു ചെയ്യുന്നു എല്ലാവരേയും കാണാറുണ്ടൊ

ആ നിങ്ങളെയൊക്കെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാറുണ്ടോ ഗെറ്റുഗദർ ഒക്കെ വച്ചിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട് എവിടെ പോവാൻ എല്ലാവരും ഒന്നും പോണില്ല ഹാഫലി മിസ്സ് ഇപ്പോഴില്ലെ ഹാഫലി മിസ്സ് ഇപ്പോൾ വേറെ എന്തോ ബിസിനസ്സ് ചെയ്യുകയാണ് തോന്നുന്നു

ശരിയെന്നാൽ പിന്നെ കാണാം